അടുത്തായിട്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് കുറച്ച് നൈവ്സ് പർച്ചേയ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണ ഞാൻ ഓൺലൈൻ പർച്ചേസിംഗ് പ്രമോട്ട് ചെയ്യാത്ത ആളാണ് പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന രീതിയിലാണ് ഞാൻ നൈവ്സ് ഓൺലൈനിൽനിന്ന് പർച്ചെയ്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഒരു ആറ് പീസ് ഓഫ് നൈഫ് ആയിരുന്നു ഓർഡറ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗുഡ് ക്വാളിറ്റി ഒക്കെ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ ഓഫർ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓഫർ ഒക്കെ നോക്കി അതിൻ്റെ റേറ്റിംഗ് ഒക്കെ നോക്കിയതിന് ശേഷമാണ് ഞാൻ ഓർഡർ ചെയ്തത് എങ്കിലും ഞാൻ ആ പ്രൊഡക്റ്റ് ഡെലിവറായപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര സാഡായിരുന്നു ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് കാരണം ഒരു സംതൃപ്തിയും ഉണ്ടായില്ല കാരണം നമ്മൾ കൊഴു ആകെപ്പാടെ നമ്മൾ കൊടുക്കുന്ന പൈസ കുറവാണെങ്കിൽ കൂടി അതിലും കുറഞ്ഞ ക്വാളിറ്റീലായിരുന്നു അവർ ആ നൈഫൊക്കെ ഡെലിവറ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓ രണ്ട് മൂന്നെണ്ണമൊക്കെ പൊട്ടീട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്നെണ്ണത്തിന് ഞാൻ പറഞ്ഞ രീതിയിലുള്ള കളറല്ലായിരുന്നു അവർ ഡിസ്പ്ലേ ചെയ്ത പോലുള്ള നൈഫേ അല്ലായിരുന്നു അവർ ഡെലിവറ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ഭയങ്കര അസംതൃപ്തി തരുന്ന കാര്യങ്ങളാണ് കാരണം നമ്മൾ ഓൺലൈനിൽ നിന്ന് ഒ ഒരു സാധനം പർച്ചെയ്സ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും ആക്ച്വലി അതിന് വളരെ ലോ റേറ്റിൽ കിട്ടുകയാണെങ്കിലും നമ്മളത് അത് ഗുഡ് ക്വാളിറ്റിയിലായിരിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്യും ഓഫർ പ്രൈസ് ആകുമ്പോൾ ലോ റേറ്റിൽ തന്നെ ആണ് പക്ഷേ ക്വാളിറ്റി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും പക്ഷെ അത് ഭയങ്കരായിട്ടും ഡിസ്സപ്പോയിന്റ് ചെയ്തു എൻ്റെ ഫാമിലി ഒക്കെ പറഞ്ഞിരുന്നതായിരുന്നു ഓൺലൈൻ പർച്ചെയ്സിങ് വേണ്ട എന്ന് പക്ഷെ എന്നാലും ഞാൻ അത് എൻ്റെ കുറച്ച് കസിൻസ് ഒക്കെ അത് ഓക്കെ ആണെന്ന് പറഞ്ഞത് കൊണ്ടു മാത്രമാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നൈഫ് ഒക്കെ എൻ്റെ കിച്ചൻ്റെ യൂസിനു വേണ്ടീട്ടായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓഫർ പ്രൈസിൽ അഞ്ചെണ്ണമൊക്കെ കിട്ടിയത് കാരണം ഞാനത് ഓർഡർ ചെയ്തതാണ് പക്ഷെ അത് ഡെലിവറി ചെയ്യപ്പോൾ രണ്ടു മൂന്നെണ്ണം ഇപ്പോൾ രണ്ട് മൂന്നെണ്ണമൊക്കെ ഡാമേജ് ആയിരിക്കുകയാ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അൻസാറ്റിസ്ഫാക്റ്ററി ആയിരുന്നു ഭയങ്കര മോശമായിട്ടുള്ളൊരു ഒരു ഫീഡ്ബാക്ക് ആണ്